എൻ്റെ അഭിപ്രായത്തിൽ സ്വയംതൊഴിൽ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആൾക്ക്

തുടങ്ങാം ഒരു വേനലിൽ തുടങ്ങിയാൽ അടുത്ത വേനലിലേക്ക് അത് പറിച്ച് നമുക്ക് അത് ഒരു പൊടിയാക്കാം കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു കിലോ ഒക്കെ ആയിരം രൂപയോളം ഒക്കെ ആകും ആ അതിൻ്റെ പൊടിക്കൊക്കെ അതെല്ലാം നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ല നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല സാധനമാണ് ഈ കുഞ്ഞിൽ കുട്ടികൾകൊക്കെ പിന്നേ ഇത് കുറുക്കി കൊടുക്കുക ഒക്കെ നല്ല ഇതെല്ലാം നമുക്ക് എന്തും എന്തിനു നമുക്ക് യൂസ് വലിയവർക്കും ഇത് യൂസ് ചെയ്യാം അവർക്ക് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ മുഖത്തിൻ്റെ ചർമ്മത്തിനുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഈ വയറു വേദനയൊക്കെ ഉള്ളവർക്ക് ഇത് ഏറ്റവും നല്ല ഒരു പൊടിയാണ് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ തുടങ്ങു ആണെങ്കിൽ അങ്ങനെ ഒരു ഒരു കൂവ കൃഷി എൻ്റെ സ്വന്തം കൈ തൊഴിലിൽ സഹായിക്കാൻ ആരെങ്കിലുമുണ്ടെങ്കിൽ ഞാൻ ഒരു കൂവ കൃഷി തുടങ്ങും അതിന് കാരണം എൻ്റെ ഫാമിലിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഇത് തുടങ്ങുന്നത് വയറുവേദനയൊക്കെ ഉള്ളവർക്ക് എനിക്ക് സഹായിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് എൻ്റെ ഞാൻ തുടങ്ങുക ആണെങ്കിൽ അത് കൂവ കൃഷി ആയിരിക്കും